ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായി എന്നുള്ളതിൻ്റെ തെളിവാണ് അവൾക്ക് ആർത്തവം ഉണ്ടാകുന്നത് അവൾ പെൺകുട്ടി എന്നതിൽ നിന്ന് സ്ത്രീയിലേക്ക് മാറുകയാണ് ഈ കാലയളവിൽ ഈ സമയത്ത് ഫിസിക്കലായും മെൻ്റലായും വളരെ അധികം വേദനകളും പ്രശ്നങ്ങളും അവൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട് പക്ഷേ അതിനെ ഹാൻഡിൽ ചെയ്യാനും കണ്ട്രോൾ ചെയ്യാനും ചെയ്യാനും നമ്മൾ തന്നെ ഒരു വഴി തന്നെ കണ്ടു പിടിക്കണം കാരണം നമ്മുടെ ബോഡി നമ്മുടെ ശരീരത്തെ നമ്മളാണ് നിയന്ത്രിക്കുന്നത് അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് പീരിഡ്സാകുമ്പോൾ നമ്മൾ വെൽ ക്ലീൻ ആയിരിക്കണം എപ്പോഴും ശുചിത്വത്തോടും ആരോഗ്യത്തോടും കൂടി നമ്മൾ ഇരിക്കണം അതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ നമ്മൾ ഉപയോഗിച്ച പാഡ് കറക്റ്റ് ആയിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യണം വെറുതെ വലിച്ച് വാരി അവിടെ ഇവിടെ ഒന്നും ഇടരുത് കാരണം അത് വളരെ ഒരു നമ്മുടെ ഒരു ഹെൽത്തിൻ്റെ ഒരു ഇഷ്യു ആണ് അത് അപ്പം നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ നമ്മുടെ ബോഡി നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എപ്പോഴും വെൽ ക്ലീൻഡ് ആയിട്ടിരിക്കണം നമ്മൾ